എൻറെ കുടുംബത്തിനെകുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചും പറയാനാണെങ്കില് ഒരുപാടുണ്ട് നല്ല ഒരു കുടുംബമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അച്ഛൻ അമ്മ അനിയൻ ഉള്ളൊരു ചെറിയ കുടുംബാണ് ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് അച്ഛൻ കൂലി പണിക്ക് പോകുവാണ് അമ്മ ഹൌസ്വൈഫാണ് അനിയൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കയാണ് ഞാനാണ് ഈ കുടുംബത്തിൻറെ ജോലി ചെയ്യുന്നത് എൻറെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവ് പോലീസ് ഓഫീസറാണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് മാളവികയും അനുവും മാളവിക ഫിഫ്ത്ത് സ്റ്റാൻഡേഡിൽ പഠിക്കുന്നു മനു സെക്കൻഡ് സ്റ്റാൻഡേഡിൽ പഠിക്കുന്നു സന്തുഷ്ടമായിട്ടുള്ള കുടുംബം ഭർത്താവിൻറെ അച്ഛൻ കൃഷ്ണൻ കൃഷിക്കാരനാണ് അമ്മ ദേവയാനി അച്ഛൻറെ കൂടെ കൃഷിയൊക്കെ ചെയ്ത് സഹായിച്ച് നടക്കുന്നു ഞങ്ങൾടെ ഒരു ഇപ്പം എൻറ വീട് ഒരു ന്യൂക്ലിയർ ഫേമിലി ആയിരുന്നു ഭർത്താവിൻറെ വീടും അങ്ങനെയൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ കോളേജ് മുതല് പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കള് ഇപ്പഴും എൻറ കൂടെയുണ്ട് ഞങ്ങളൊരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് സന്തോഷമായിട്ട് പോകുന്നു എല്ലാ തോന്നിവാസത്തിനും കൂടെ നിക്കുന്ന സുഹൃത്തുക്കളാണ് നമുക്കെപ്പോൾ വേണെങ്കിലും അവരെ പോയി വിളിക്കാം അവരോട് സംസാരിക്കാം എന്ത് പ്രശ്നം വേണെങ്കിലും അവരോട് സംസാരിച്ച് തീർക്കാം എവിടേയ്ക്ക് വേണെങ്കിലും അവരോട് നമ്മള് ധൈര്യായിട്ട് നമുക്ക് പോവാൻ പറ്റുന്ന സുഹൃത്താണ് നല്ലതാണ് നല്ല നല്ല ബന്ധങ്ങള് തന്നെയാണ് എനിക്കിണ്ടായിരിക്കുന്നത് ഒന്നും രണ്ടും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാകുമെങ്കിലും കുറെ കഴിഞ്ഞാൽ സമയത്ത് ഞങ്ങള് വീണ്ടും പഴയത് പോലെ ആകാറുണ്ട് ഒന്നും മനസ്സില് വെയ്ക്കാതെ തന്നെ നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങള് നിലനിർത്തുന്നില്ല കൊണ്ട് പോകുന്നുണ്ട് മുന്നോട്ട് കല്യാണം കഴിഞ്ഞ് പോയിട്ടും അതിനൊന്നും ഒരു തടസ്സവും ഇതുവരെ വരുത്തിയിട്ടില്ല എല്ലാവരും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഞങ്ങളെപ്പാഴും എല്ലാവരുമായിട്ടും പരസ്പരം ബന്ധപെട്ടിട്ടെന്നെയാണ് ജീവിച്ചിട്ട് പോകുന്നത് നല്ലതാണ് എല്ലാം കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും നല്ലവരെന്നെയാണ്